ഞാൻ വയനാട്ടുക്കാരിയാണ് എനിക്ക് ഡൽഹിക്കാണ് പോകേണ്ടത് അവിടെ ഡൽഹില് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ട് വയനാട്ടിൽ നിന്ന് പോകണമെങ്കിൽ വയനാട്ടില് ട്രെയിനിൻ്റെ സൗകര്യമില്ല വിമാനത്താവളവുമില്ല അതുകൊണ്ട് കോഴിക്കോട് ചെന്നിട്ട് പോകണം അപ്പം കോഴിക്കോടേക്ക് ഞാൻ ഒരു ടാക്സി വിളിച്ചു ടാക്സി എത്താൻ വൈകിപ്പോയി പതുക്കെ പതുക്കെ ആയിരുന്നു കോഴിക്കോട് എത്തിയത് കോഴിക്കോട് എത്തിയപ്പഴേക്കും ട്രെയിനിൻ്റെ സമയം കഴിഞ്ഞുപോയി അതുകൊണ്ട് രണ്ടു ദിവസം മുടങ്ങിപ്പോയി അതുകൊണ്ട് എനിക്ക് അവിടെ അർജന്റായിട്ട് സ്ഥലത്തു എത്തൂ ചെയ്യണായിരുന്നു അതുകൊണ്ട് പിന്നെ ഒരു രക്ഷയുള്ളത് എനിക്ക് ഫ്ലൈറ്റിൽ പോകാണ്ട ഗതി വന്നു അപ്പോഴേക്കും പൈസ ഒരുപാട് പൈസ ആകുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് എനിക്ക് ടാക്സി ഡ്രൈവറെ എനിക്ക് ദേഷ്യവും വന്നു അത്രേയും പൈസ മുടക്കിയിട്ട് എനിക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തണമായിരുന്നു